എനിക്ക് ഒറ്റയ്ക്ക് റൈഡ് ചെയ്യാനായിട്ടാണ് ഇഷ്ടം അപ്പം നമുക്ക് വേറെ ആരുടെയും ഒരു കൺസെന്റ് ഒന്നും വേണ്ട നമ്മള് ഒറ്റയ്ക്ക് തന്ന് യാത്രകള് ചെയ്ത് അപ്പം ഒത്തിരി സ്ഥലങ്ങള് നമുക്ക് കാണാൻ സാധിക്കും മറ്റ് റൈഡേഴ്സിന് പോയിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സ്ഥലങ്ങളും ഒരുമിച്ച് കാണണം സമയവില്ല എല്ലാം നമുക്കൊരു ടൈമിങ്ങ് വെച്ച് ചെയ്യാൻ പറ്റുകയുള്ളു ഇതാകുമ്പം നമുക്ക് തന്നെ എത്ര സമയം വേണേലും ഒര് സ്ഥലത്ത് തന്നെ ഒര് സ്ഥലം തന്നെ കണ്ട് അവിടെ തന്നെ ഇരുന്ന് നമുക്ക് ആസ്വദിച്ച് സമയമൊക്കെ കണ്ടെത്തി നമുക്ക് പോകാൻ സാധിക്കുന്നതാണ് മറ്റേ മറ്റേതെന്ന് പറയുമ്പോൾ കൂട്ടുകാരുമൊക്കെയൊത്ത് പോകുവാണെങ്കിൽ അവർക്ക് കൃത്യ സമയത്ത് ഇത്ര പേർക്ക് ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് എവിടേലുമൊക്കെ ചെല്ലണം അടുത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുവാണെങ്കില് നമക്കെത്ര സമയം വേണേലും ഒര് സ്ഥലത്ത് തന്നെ നിൽക്കാം പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് പയ്യെ സമയം കണ്ടെത്തിപ്പോയാൽ മതി എല്ലാ സ്ഥലവും ആസ്വദിച്ച് പയ്യെ അങ്ങനെ പോകുന്നതാണ് എനിക്കിഷ്ടം എല്ലാ സ്ഥലങ്ങളും ഒറ്റയ്ക്ക് പോയി കണ്ടാസ്വദിച്ച് അങ്ങനെ വരാനാണ് നമുക്ക് കൂടുതലും എനിക്കിഷ്ടം